ഹലോ ആ പറഞ്ഞോളൂ അതെ അതേ ഞാൻ ഇവിടെ ആലപ്പുഴയിൽ ഉള്ള ആളാണ് അതെ അതേ

നമ്മൾ എന്നാ ഉദ്ദേശത്തിലാ എന്തും മാത്രം സ്ഥലം വേണം വീട് വേണോ എന്നാ സൗകര്യമാണ് വേണ്ടത്

ആ ആ ആ ഏത് ഏരിയേലാ ആലപ്പുഴ ഏരിയേൽ മതിയോ

ആ കുറച്ച് ഉള്ളിലോട്ട് ആവുമ്പം വില കുറച്ച് കുറഞ്ഞ് കിട്ടും ടൗണിലാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് വില വെരും മ്മ് വഴിയും റോഡോക്കെ ഉള്ള സ്ഥലങ്ങളാണ് ടാർ റോഡൊള്ളതാണ് കാറ് കയറുന്നതാണ് കാർ പോർച്ച് ഉണ്ട് മൂന്ന് ബെഡ്റൂമിൻ്റെ വാർത്ത വീടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എല്ലാ എല്ലാ സൗകര്യവും ഉള്ളതാണ് വെള്ളം വെള്ളമുണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് മ്മ് എന്നാൽ അങ്ങനെ ഉള്ളതും ഉണ്ട് ചുറ്റുമതിലുള്ളതാണ് വന്ന് കണ്ട് കഴിഞ്ഞ് വന്ന് കണ്ട് കഴിഞ്ഞ് എല്ലാം ഇതായി കഴിയുമ്പം നമുക്ക് വിലയുടെ കാര്യം സംസാരിക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ സെൻറ്റിനൊരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഉള്ളത് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഒരു ഒമ്പത് സെൻറ്റും വീടും ഉള്ള സ്ഥലം ഉണ്ട് അവർ ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ആ വീട് നല്ല വീടാണ് മൂന്ന് റൂമ് ഉണ്ട് രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമ് ആണ് മ്മ് വെള്ള സൗകര്യം ഉണ്ട് കിണറുണ്ട് കിണറുണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് കാർ പോർച്ച് ഉണ്ട് ആ എങ്ങനെ എങ്ങനെ ആ അതൊക്കെ നോക്കി അതൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി നോൺ ലയബലിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് തരാമല്ലോ ബാധ്യത സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ചെയ്താൽ മതി അങ്ങനൊന്നും ഇല്ല ലോൺ ഒന്നും ഉള്ളതല്ല

മ്മ് അതൊക്കെ അതൊക്കെ ഒള്ള പേപ്പർ ഒക്കെ പക്കായാ ആ അത് നോക്കി എടുത്താൽമതി അത് അഡ്വാൻസ് അഡ്വാൻസ് എന്തെങ്കിലും കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് പേപ്പറിൻ്റെ കോപ്പി തരാം അത് വക്കീൽനെ കൊണ്ട് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽമതി മ്മ് ആ ശരി ശരി ഇതെല്ലാം അങ്ങനെ ഉള്ള പ്രശ്നം ഒന്നും ഉള്ളത് അല്ല അങ്ങനെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊന്നും ഉള്ള സ്ഥലമല്ല നിങ്ങളത് മ്മ് മ്മ് കിണറും ഉണ്ട് വാട്ടർ സപ്ലൈയും ഉണ്ട് രണ്ടും ഉള്ളതാണ് വണ്ടിയും കയറും വണ്ടിയും കയറും മ്മ് മ്മ് വലിയ കാറ് കയറും വീടിന് ആ വീടിന് വീടിന് വീടിന് ഒരു നാലഞ്ച് വർഷം പഴക്കം ഉണ്ട് അതെ ഉള്ളൂ അല്ലാതെ കുഴപ്പം ഒന്നും ഇല്ല ചെറിയ മെയിൻറ്റേൻസ് ഒക്കെ ഉള്ളെന്ന് പെയിൻറ്റിങ്ങ് അങ്ങനൊള്ള ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി

ആ ആ അത് വന്ന് കണ്ട് വന്ന് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം വന്ന് കാണ് കണ്ട് കഴിയുമ്പം ബാക്കി കാര്യം സംസാരിക്കാം അത് വിളിച്ചാൽ മതി വരുമ്പം വിളിച്ചാൽമതി ആലപ്പുഴ വന്ന് കഴിയുമ്പം വിളിച്ചാൽമതി കൊണ്ട കാണിക്കാം അപ്പം ശരി ആ ശരി ശരി ശരി ശരി ശരി ഓക്കെ